ഹലോ ഭാനുവല്ലേ എനിക്ക് ഒരു യാത്ര പോകണമായിരുന്നു അതിനുവേണ്ടി ഒരു ക്യാബ് ആവശ്യമുണ്ട് ക്യാബിൻ്റെ ഡ്രൈവറുടെ ഫീസ് എത്രയാണ് അവർ എത്രയാണ് ചാർജ് ചെയ്യുക അതിനെക്കുറിച്ചൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ നിനക്ക് ഫ്രീ ആണോ ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് ഇപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞു തരുമോ എനിക്ക് ഇവിടെ പാലക്കാട് നിന്ന് കോഴിക്കോട് വരെ പോകുവാനുള്ളതാണ് അതുകൊണ്ട് എത്ര രൂപ കിലോമീറ്ററിന് അവർ എത്രയാണ് വാങ്ങിക്കുക നല്ല ഡ്രൈവർ ആയിരിക്കണം ബെസ്റ്റ് ഡ്രൈവിംഗ് ആയിരിക്കണം വയസ്സായ ആൾക്കാരേയും കൊണ്ടൊക്കെയാണ് ഞാൻ പോണത് അതുകൊണ്ട് അവർക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത തരത്തില് നല്ല ഡ്രൈവിംഗ് ഉള്ള നല്ല ഡ്രൈവിംഗ് അറിയുന്ന നല്ല വണ്ടിയാണ് എനിക്ക് പറഞ്ഞു വിടേണ്ടത് അതിന് എത്രയൊക്കെ വാടകയാവും അവർ നമ്മളെ വെയിറ്റ് ചെയ്യുമോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് പറഞ്ഞു തരാമോ